ഹലോ കിച്ചൻ മൈ ഹോട്ടൽ അല്ലേ ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓർഡർ പറയുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ രണ്ടു മണിക്കൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ഏകദേശമൊരു പത്ത് പേരോളം ഉണ്ടാവും അപ്പം അതിന് ഒരു ആറ് ചിക്കൻ ബിരിയാണി ഒരു നാല് ബീഫ് ബിരിയാണി പിന്നെ അതിൻ്റെ പത്ത് ഐസ്ക്രീമ് പിന്നെ ലെമൺ ജ്യൂസ് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് വേണമായിരുന്നു ഇതിന് ഇതിൻ്റെ റേറ്റ് ഒന്ന് ആഡ് ചെയ്തു തരുമോ ഓ ശരി ശരി നിങ്ങൾ ഡെലിവറി ഉണ്ടോ അത് ഓഫർ വല്ലതുമുണ്ടോ എങ്ങനെയാനണ് ഡെലിവറി ചാർജ് ഉണ്ടല്ലേ ഓക്കെ ശരി ശരി ഞാൻ കോൺടാക്ട് ചെയ്യാം ഓക്കേ ആ എലൈറ്റ് ഹോട്ടലിലും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം അവിടുത്തെ റേറ്റും കൂടെ ഒന്ന് എടുക്കാം ഹലോ ആ എലൈറ്റ് ഹോട്ടൽ അല്ലേ നമ്മുടെ വീട്ടിൽ ഇന്ന് രണ്ടു മണിക്ക് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് ഒരു ഏകദേശം ഒരു പത്ത് പേർക്കുള്ള ഫുഡ് വേണമായിരുന്നു ആറ് ചിക്കൻ ബിരിയാണി ഒരു നാല് ബീഫ് ബിരിയാണി പിന്നെ ഐസ്ക്രീം ലെമൺ ജ്യൂസ് ഇതിൻ്റെ റേറ്റ് ഒന്ന് പറയുമോ ഓ ശരി ഓക്കേ നിങ്ങൾ ഡെലിവറി ചെയ്യുമോ ഇല്ലയോ നിങ്ങൾക്ക് ഇവിടെ ഡെലിവറി ഇല്ല ചെയ്യത്തില്ല അല്ലേ അവിടെ വന്ന് എടുക്കേണ്ടി വരുമോ ഓ ശരി ശരി ഓക്കേ ഇനി നമുക്ക് ഇവിടെ നിന്ന് വരാൻ ആളില്ലായിരുന്നു അപ്പോൾ ഓ മറ്റൊരു ഹോട്ടലിൽ ഒന്ന് ബന്ധപ്പെടാനോ ഓ ശരി ശരി ഹലോ ആ സൂര്യ ഹോട്ടൽ അല്ലേ രണ്ടു മണിക്ക് നമ്മുടെ വീട്ടിൽ വച്ച് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ഏകദേശം ഒരു പത്ത് പേർക്കുള്ള ഫുഡ് വേണമായിരുന്നു ഒരു ആറ് ചിക്കൻ ബിരിയാണി നാല് ബീഫ് ബിരിയാണിയും ഐസ്ക്രീം പത്തെണ്ണം വേണം പിന്നെ എല്ലാവർക്കും ലെമൺ ജ്യൂസ് ഇത്രയും വേണം അതിന് ഏകദേശം എത്ര രൂപയാവുമെൻ ഒന്ന് പറയാമോ ഓ ശരി ശരി ഒന്ന് ഓക്കേ ഇത് റേറ്റ് കൂടുതലാണല്ലോ അതൊന്ന് മെയ്ന്ൻ്റെയ്ൻ ചെയ്തു തരുമോ റേറ്റ് ഒന്ന് കുറച്ച് തരുമോ ഓ നിങ്ങൾക്ക് ഓഫറുകൾ വല്ലതും ഉണ്ടോ അതെയോ ആ ഡെലിവറി ചെയ്യും അല്ലേ ആ ഞാൻ ഞാൻ എന്നാൽ തിരികെ വിളിക്കാം ഹലോ ആ ഡയാന ഹോട്ടലിലും കൂടി ഒന്ന് വിളിച്ചു നോക്കാം ഹലോ ആ ഡയാന ഹോട്ടൽ അല്ലേ ആ എനിക്ക് ഇന്ന് രണ്ടു മണിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഒരു ഏകദേശം പത്ത് പേർക്ക് ഉള്ള ഫുഡ് വേണമായിരുന്നു ആർ ചിക്കൻ ബിരിയാണി ഒരു നാല് ബീഫ് ബിരിയാണി അയിൻ്റെ കൂടെ ഐസ്ക്രീം വേണം പത്ത് ഐസ്ക്രീം പിന്നെ ലെമൺ ജ്യൂസ് കൂടെ കൊടുക്കണമായിരുന്നു ആ അതിന് അത്ര രൂപയാകും അല്ലേ അത് ഞാൻ അയച്ചു തന്നാൽ മതിയല്ലോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് പൈസ തന്നാൽ മതിയല്ലേ ഓ നിങ്ങളുടെ ഓഫർ ഉണ്ടല്ലോ ഡെലിവറി ചാർജ് ഇല്ല അല്ലേ ഓ ശരി ശരി ശരി അപ്പോൾ ഈ പത്ത് മണിക്ക് രണ്ടു മണിക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുമല്ലോ അതെയോ ശരി ഓക്കേ അപ്പം ആ ഓർഡർ ആ ഓർഡർ എടുത്തോളൂ എടുത്തോളൂ ശരി ഓക്കേ താങ്ക യു